സ്കൂട്ടറോടിക്കുമ്പോൾ ബൈക്കോടിക്കുമ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ആദ്യം ഹെൽമറ്റ് കാണും പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും അതിൻ്റെ ആർ സി ബുക്കുണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുണ്ട് പിന്നെ ഇൻഷുറൻസ് തീർന്നോ ഇല്ലയോയെന്ന് നോക്കും കാരണം നമുക്ക് പലയിടത്ത് വച്ചും ബൈക്കിൽ പോകുമ്പോഴേക്ക് പോലീസ് കൈ കാണിക്കാനോ അല്ലെങ്കിൽ പെറ്റിയടിക്കാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കാരണം എപ്പോഴും ഞാനിതെല്ലാം എൻ്റെ ബാഗിൽ അല്ലെങ്കിലിതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ എടുത്ത് ഞാനെൻ്റെ ഫോണിൽ സൂക്ഷിക്കാറുണ്ട് ഇൻഷുറൻസൊക്കെ തീർന്നാലും ബൈക്കിലെപ്പോഴും പെട്രോളുണ്ടോയെന്ന് നോക്കും ഇറങ്ങുന്നതിന് മുമ്പേ ആദ്യമേ അതിനകത്ത് പെട്രോളുണ്ടോ അതിനെവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതിൻ്റെ ഹാൻ്റ്ബ്രേക്കെല്ലാം മുറുക്കിയിട്ടുണ്ടോ ഇതെല്ലം നോക്കിയിട്ടാണ് ഞാൻ വണ്ടിയെടുക്കാറ് കാരണം വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ് ഞാൻ പോകാറുള്ളത് കാരണം നമുക്കുള്ളിലൊരു പേടിയുണ്ട് ബൈക്കിലങ്ങനെ പോകുമ്പോൾ വഴിക്ക് വച്ച് നിന്നാൽ ഞാനെന്ത് ചെയ്യും എന്നൊക്കെയുള്ള ആങ്ങ്സൈറ്റി കൂടുതലുള്ളത് കാരണം ബൈക്ക് യാത്രയിടയ്ക്കിപ്പം ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരങ്ങങ്ങളും നടത്തിയിട്ടാണ് ഞാൻ ബൈക്കെടുക്കാറുള്ളത് മിക്കവാറും എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഒരു കുപ്പിയും കാണും കാരണം ഇപ്പം ഇൻകേസ് എവിടെയെങ്കിലും വെച്ച് പെട്രോൾ തീർന്നാൽ പോയി പെട്രോള് വാങ്ങിക്കാനും അതെടുക്കാനുമൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളുമൊക്കെ റെഡിയാക്കി ഞാൻ ബൈക്ക് യാത്രയ്ക്ക് പോകാറുള്ളു പിന്നെ ഞാൻ കഴിവതും ഞാൻ ഓവർടേക്ക് ചെയ്യത്തില്ല ഞാൻ വളരെ സ്ലോയിൽ അതായത് പിള്ളേരൊക്കെ കൂടിയ കാരണം ഞാൻ പോകുന്നെങ്കിൽ പിള്ളേർ പറയും അമ്മേ നമ്മളിങ്ങനെ തുഴയാതെ അമ്മ വണ്ടി വേഗം വിട് പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് പോകേണ്ടടുത്ത് എത്തിയാൽ മതി നമ്മളാരെയും ചാകാൻ വേണ്ടി ആയിട്ട് വണ്ടി ഓടിക്കരുത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഒരു വണ്ടിയെപ്പോലും ഞാൻ കഴിവതും ഞാൻ ഓവർടേക്ക് ചെയ്യാതെ സുരക്ഷിതമായിട്ടാണ് ബൈക്ക് യാത്ര ചെയ്യുന്നത്